ഈ രാസ പദാർത്ഥമുള്ള കീടനാശിനികൾ മണ്ണിനെ വല്ലാതെ സ്വാധിനിച്ചിട്ടുണ്ട് നമ്മൾ വേണ്ട നമ്മൾ ഈ റൗണ്ട് അതായത് റൗണ്ട് അപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഏ വൻ കാടുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ റൗണ്ട് അപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ അടിക്കുമ്പം ആ കാട് വേഗം ഉണങ്ങി കിട്ടും അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ കാടൊക്കെ ഉണങ്ങി റെഡിയാകും പക്ഷെ ഈ മണ്ണ് പെട്ടെന്ന് പെട്ടെന്ന് പൊടിഞ്ഞു പോകും അതിൻ്റെ വളാംശങ്ങളൊക്കെ പോയി ആ മണ്ണ് മണ്ണിന് ഒരു ഉറപ്പില്ലാതെ പൊഴി പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും അതേപോലെ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് മണ്ണിന് മാത്രമല്ല മണ്ണിൽ ജീവിക്കുന്ന ഒത്തിരി പിന്നെ ഇതുണ്ട് മണ്ണിരയുണ്ട് കുറേ സംഭവമുണ്ട് അത് നമ്മുടെ ഈ രാസ പദാർത്ഥത്തിൻ്റെ അമിത ഉപയോഗം നമുക്ക് മാത്രമല്ല മണ്ണിൽ ജീവിക്കുന്ന മണ്ണിരയ്ക്ക് പോലുള്ള എല്ലാ ജീവിക്കും ബാധിക്കും പിന്നെ മണ്ണിൽ തന്നെ അമ്ലത്വം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നശിച്ച് പോകാൻ ഇടയാകും ഏ നമ്മൾ എന്ത് നടുമ്പോൾ അതിന് എല്ലാറ്റിനും എല്ലാ കണ്ടൻ്റും വേണം മണ്ണിൽ അതില്ലാതെ നട്ടിട്ട് എന്താ കാര്യം അപ്പം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീടനാശിനികളുടെ ഉപയോഗം കുറച്ചിട്ട് നമ്മൾ പിന്നെ നമുക്ക് മറ്റേ എല്ലാ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ കുറേ നല്ല ഇതൊണ്ട് ആ പിന്നെ നമ്മുടെ പശുവിൻ്റെ മൂത്രവും പശുവിൻ്റെ ചാണകവും എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്ത് അങ്ങനെ അതിൽ നിന്ന് നല്ല ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം